നമ്മുടെ വയനാട്ടിൽ കേളു എം എൽ എ സിദ്ധിഖ് എം എൽ എ പിന്നെ നമ്മുടെ എം പി ആയിരുന്നു രാഹുൽ ഗാന്ധി ആയിരുന്നു ഇപ്പം അല്ല പിന്നെ ഇവരുടെ ഭരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഉന്നമനം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് നമ്മുടെ റോഡുകൾക്ക് വികസനം ഉണ്ട് പിന്നെ പുതിയ പുതിയ കെട്ടിടങ്ങൾ സ്കൂളിൽ പുതിയ ബ്ലോക്കുകൾ പിന്നെ ആശുപത്രി നമുക്ക് നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ കോളേജില്ല ആദ്യം കൈനാട്ടീൻ്റെ അടുത്ത് ഒരു സ്ഥലത്തവർ മെഡിക്കൽ കോളേജുണ്ടാക്കാം എന്നു പറഞ്ഞാലും നമുക്കെന്തെങ്കിലും എമർജൻസി വന്നാൽ നമ്മൾ കോഴിക്കോട് കൊണ്ടുപോകണം അങ്ങനെ അവർ നമ്മുടെ ഗവൺമെൻ്റ് പിന്നെ മെഡിക്കൽ കോളേജാക്കി ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ മാനന്തവാടി ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കൊളേജാക്കി അംഗീകരിച്ചു അങ്ങനെ കുറേ കുറേ നല്ല കാര്യങ്ങളവർ ചെയ്യുന്നുണ്ട്